പെട്രോളിൻ്റെ വില വർധന നമുക്ക് നല്ലോം ബാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ വരുമാനത്തിനൊരുഭാഗം നമ്മൾ വാഹനത്തിന് പെട്രോളടിച്ചു പൈസ പോവ്വാന്നല്ലേ പിന്നെ ഇന്ധനങ്ങൾ കൂടുതൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പരിസ്ഥിതി മലിനീകരണം നമ്മളെ പരിസ്ഥിതിക്കുണ്ടാവും ആ പരിസ്ഥിതിക്ക് അത് ഹാനീകരമാണ് പുക ഇതൊക്കെ ഇത് ഇങ്ങനെ കത്ത് വാഹനം വർക്ക് ചെയ്യുമ്പോൾ ഈ ഇന്ധനം ഇത് കരിയിണതിനനുസരിച്ച് ഇതിൽ നിന്നുള്ള പുകയും കാര്യങ്ങളൊക്കെ പരിസ്ഥിതിക്ക് മലിനീകരണമാണ് പിന്നെ പെട്രോളിൻ്റെ വില വർഷം വർഷം കൂടുവല്ലേ അപ്പോൾ നമ്മൾ കിട്ടുന്ന വരുമാനം നമ്മൾ ജോലിക്ക് പോയിന്ന് കിട്ടുന്ന വരുമാനം അത്ര പെട്ടന്ന് കൂടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വരുമാനം വരുമാനത്തിന്ന് നല്ലൊരു പങ്ക് വാഹനത്തിന് എണ്ണയടിക്കാൻ കൊടുക്കേണ്ടിവരും ഏ അപ്പോൾ ബൈക്കിന്ന് അല്ല ഏതിനായാലും പെട്രോളടിക്കുമ്പോൾ ആ പൈസ നമുക്ക് നഷ്ടം തന്നെയാണ് ലിറ്ററിന് ദിനംപ്രതി വില കൂടിക്കൂടി വരുവാണല്ലോ സംഗതി വാഹനം ഇല്ലാഞ്ഞാൽ ഞമ്മക്ക് യാത്ര ചെയ്തെന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോണമെങ്കിൽ വാഹനം നിർബന്ധം ആണ് വാഹനം കൊണ്ടുപോണെങ്കിൽ പെട്രോളടിക്കൽ ഇന്ധനടിക്കൽ നിർബന്ധമാണ് ഇന്ധനം അടിച്ച് വാഹനം ഓടിച്ച് പോകുമ്പോൾ കൂടുതൽ എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പരിസ്ഥിതിക്ക് ഹാനീകരമായിട്ടും വരും